മലയാള ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു ആധുനിക ഭാഷയാണെന്നു നമുക്ക് പറയാം ഒൻപതാം നൂറ്റാണ്ടിലാണ് ഈ മലയാള ഭാഷ രൂപപ്പെട്ടത് ഒരു ഉപഭാഷ എന്നൊരു നിലയില് എന്നാണൊരു പൊതുവായ നിഗമനം എന്നാൽ ഇപ്പോൾ നമുക്ക് മലയാള ഭാഷ അത്രക്കും പൂർണ്ണമായും ഉപയോഗിക്കുന്നതായി കാണാൻ തന്നെ സാധിക്കുന്നില്ല എല്ലാവരും ഇപ്പൊൾ ഇംഗ്ലിഷിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തെന്നാൽ ഇപ്പൊൾ മലയാളം അറിയുന്നവർപ്പോലും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും ഇംഗ്ലീഷാണ് അവരുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ മലയാളം എന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അമ്മ പിറന്ന മണ്ണിനെയാണ് ഓർമ്മ വരിക എന്നാൽ ഇപ്പൊൾ എല്ലാവരും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ് മലയാളം സംസാരിക്കുമ്പോ പലർക്കും ഒരു നാണക്കേട് എന്നൊരു നിലക്കാണ് അവരുടെ ഉള്ളിൽ നിന്നൊരു ഒരു തോന്നലാണ് എന്തോ മലയാളം സംസാരിക്കുമ്പോൾ ഒരു നാണക്കേടാണ് എന്നൊരു തോന്നലാണ് അതുപ്പോലെതന്നെയാണ് ഇംഗ്ലീഷും അല്ലാതെ ഹിന്ദിയും ഈ രണ്ടു ഭാഷകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണുന്നത് മലയാളത്തിൻ്റെ പ്രസക്തി വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എല്ലാവരും ഇപ്പൊൾ നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മക്കളെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണം അന്തസ്സ് മാത്രമല്ല പറയുകയാണെങ്കിൽ എന്തെന്നാൽ ഇപ്പോഴുള്ള ജോലി സാധ്യതയൊക്കെ ജോലി സാധ്യതകളൊക്കെയും ഇംഗ്ലീഷിലാണ് കാരണം മലയാളം കൊണ്ട് മാത്രം നമുക്ക് പിഎസ്സി എന്നുപോലുള്ള പൊതുവായിട്ടുള്ള ഗവൺമെന്റ് ജോലികൾ ലഭിക്കുമെന്നല്ലാതെ എല്ലാ പ്രൈവറ്റ് ജോലി സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷറിഞ്ഞാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ഇപ്പൊൾ മലയാള ഭാഷയുടെ പ്രസക്തിയും നിലവാരവും നിലവാരം ഒരിക്കലും കുറഞ്ഞെന്നു പറയാൻ സാധികത്തില്ല എന്നാലും അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പലർക്കും അറിയില്ല പലതിന്റെയും ഇപ്പൊൾ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ തന്നെ ഓരോ മലയാള വാക്കിൻ്റെയും ഇംഗ്ലീഷ് പറഞ്ഞുകഴിഞ്ഞാൽ അത് മലയാളത്തിൽ ഇതാണെന്നു പലർക്കും അറിയത്തില്ല പക്ഷികളുടെ പേരുകളായിക്കോട്ടെ പൂക്കളുടെ പേരുകളായിക്കോട്ടെ അല്ലാതെ നമ്മുടെ ചുറ്റും കാണുന്ന പലതിൻ്റെയും മലയാളം വാക്കുകളെന്താണെന്നു കുട്ടികൾക്കറിയത്തില്ല അതിൻ്റെ കാരണമിതുതന്നെയാണ് മലയാളത്തിൻ്റെ പ്രസക്തി എത്ര എത്ര ഉണ്ട് എന്ന് നമ്മുടെ അധ്യാപകരും അതുപോലെതന്നെ അവരുടെ മാതാപിതാക്കളും പറഞ്ഞു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു